എന്താ ഞാനിപ്പം ഇന്ന് രാവിലെ ഇവിടെ വീട്ടിലെ മുറ്റത്ത് ചെടികളൊക്കെ ഇങ്ങനെ നനച്ചു കൊണ്ടു നിന്നപ്പോൾ എന്താ നമ്മൾ വേലീൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ ചെറിയ നനവുകൾ നന നനവുകളിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട് ഇത് എന്താണെന്നു മനസ്സിലായില്ല ഞാനും എന്തെങ്കിലും നനയ്ക്കുമ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ആകുമോ എന്നൊക്കെ വിചാരിച്ച് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവിടെ അടുത്തടുത്തായിട്ടിങ്ങനെ കുറേ പുതിയ നനവ് ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട് ഇതിനു മുന്നെ ഇങ്ങനെ ഒരു ഇത് ഇവിടെ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പരിസരവാസികൾ സംസാരിച്ചപ്പോൾ ഒരു രണ്ട് മൂന്ന് വീടുകളിലൊക്കെ ഇങ്ങനെ കണ്ടുവെന്നു പറഞ്ഞു പൊതുവെ ഒരു വരണ്ട പ്രദേശമാണ് ഇവിടെ ജലക്ഷാമം നല്ല വണ്ണം ഉള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഈ ലൈൻ പൈപ്പിലത്തെ വെള്ളം വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊരു ഇത് കണ്ടപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ കാരണമെന്നറിയില്ല എന്താണ് ഇപ്പം ഇതിന് ചെയ്യുക എന്നറിയാമോ ഒരു പ്രതിവിധി എന്താണ് നമുക്ക് വെള്ളത്തിൻ്റെ ഒരിത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതായിരുന്നു ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെയായിട്ട് നനവ് നല്ല വണ്ണം കാണുന്നുണ്ട് ഏതായാലും നിങ്ങളൊന്ന് വന്നു നോക്ക് കേട്ടോ ആ ഓക്കെ താങ്ക് യൂ